ചെടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഞങ്ങൾ ചെടികൾ വളർത്തുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് വീട്ടില് തന്നെ നമ്മളിപ്പോൾ പ്ലേറ്റ് ചെടികള് പിന്നെ ഡാലിയ പിന്നെ ഡാലിയ ഒക്കെ ഒരുപാട് ഉണ്ട് പിന്നെ റോസ് ചെടികളുണ്ട് നമ്മളിങ്ങനെ ടൗണിൽ ഒക്കെ കാണുമ്പോൾ ഒരുപാട് മേടിച്ചുകൊണ്ട് വന്ന് ചെടികൾ കാര്യങ്ങളുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടങ്കിൽ പിന്നെ തെച്ചി പൂവുണ്ട് പിന്നെ തുളസികളുണ്ട് അതായത് കരിം തുളസിയുണ്ട് കൃഷ്ണ തുളസിയുണ്ട് പിന്നെ ഒരുപാട് ഇല ചെടികളായിട്ടുള്ള ചെടികള് അങ്ങനെ ചെടികളൊക്കെയുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടങ്കിൽ നമുക്ക് പച്ചക്കറിയിൽ പറയുക ആണെങ്കി നമ്മുടെ വീട്ടില് തക്കാളി ഉണ്ട് അതായത് വള്ളിയിൽ പടരുന്ന തക്കാളിയുണ്ട് സാധാ തക്കാളിയുണ്ട് പിന്നെ വള്ളിച്ചെടികൾ എന്ന് പറയാൻ ആണെങ്കിൽ നമുക്ക് പയറുണ്ട് പിന്നെ ബീൻസ് ഉണ്ട് അങ്ങനെ ഉള്ളതൊക്കെ ഉണ്ട് പിന്നെ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടങ്കിൽ തക്കാളിയാണ് കൂടുതൽ ഉണ്ടാകുന്നത് പിന്നെ നമുക്ക് വെണ്ടയ്ക്ക നട്ടിട്ടുണ്ട് വെണ്ടയ്ക്ക ഇപ്പോൾ വിളവ് എടുത്തിട്ടേയുള്ളൂ അതിന് കുറച്ച് മുന്നേ വിളവ് എടുത്തിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടങ്കില് വഴുതന അങ്ങനെയുള്ളത് ഒക്കെ നമ്മൾ ഒരുപാട് നട്ടിട്ടുണ്ട് വെണ്ടയ്ക്ക വഴുതനങ്ങകൾ ഒരുപാട് പിന്നെ ചെടികള് അപ്പം ഞങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടത് നമുക്ക് നമ്മുടെ തോട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്